ആ ഹലോ പറഞ്ഞോളൂ ആ അതേല്ലോ എക്സ്പ്രസ് ഡെലിവറിയാണ് പറഞ്ഞോളൂ ഓ സർ വിൽക്കാനാണോ സർ ഓ അപ്പോള് സാറിനിത് റിട്ടൺ ചെയ്യണമോ ഇങ്ങോട്ട് ഒഫ്കോഴ്സ് നമുക്കാണെങ്കില് ഇപ്പോള് കറന്റ്ലി ഇപ്പോള് സെവന്ത് ജാനുവരി ആണ് നമുക്കു സാറിൻ്റെ പ്രൊഡക്റ്റ് ഒരു സെക്കന്ഡ് ഞാനൊന്നു ചെക്ക് ചെയ്തോട്ടേ സാറിന്റെ പ്രൊഡക്റ്റ് ന്ന് പറയാമോ ഓക്കെ

സീറോ സിക്സ് ആ ഓക്കെ സാർ ഞാനൊന്നു ചെക്ക് ചെയ്തോട്ടെ ആ ഓക്കെ സാർ കാണുന്നുണ്ട് സാര് കൃത്യം ഡേറ്റിലാണത് റിട്ടേണ് കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ഇന്നു വൈകുന്നേരം വരെ അതിന്റെയൊരു ഡെഫര് വിത്ത് ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ആ അതെ സാർ ബ്ലൂ കളറാണ് ഓക്കെ സാറിത് ബ്ലൂ കളറാണ് അടിച്ചിരിക്കുന്നത് ആ ഓക്കെ സർ റീഫണ്ടാണോ റിഫ്രഷ്മെന്റാണോ കൊടുത്തിരിക്കുന്നത് കറന്റ്ലി റീഫണ്ടാണു കൊടുത്തിരിക്കുന്നത് സാർ അപ്പോള് ആ സാര് എന്നുവച്ചിട്ടുണ്ടെങ്കി നമ്മൾ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തുകഴിയുമ്പോള് പിന്നെ നമുക്ക് കമ്പനിയായിട്ട് കോൺടാക് ചെയ്യുമ്പോള് നമുക്ക് കുറച്ച് എന്താണ് ഫീസൊക്കെ വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയായിട്ട് അപ്പോള് അതുതന്നെയാണ് നമ്മളത് ഫൈവ് പെര്സന്റേജ് എടുക്കുന്നത് അതും നമ്മളൊരു അതും സാറിൻ്റെ ഫൈവ് പെര്സന്റേജ് നമ്മളൊരു അത്രയും നമ്മള് ഡിസ്കൗണ്ട് നമുക്കൊരു സെവൻ ടു എയിറ്റ് പെർസെന്റേജ് വരുന്നതാണ് ഇപ്പോള് ഒരു ന്യൂ ഇയറിൻ്റെ ഇതൊക്കെയായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മളൊരു ഫൈവ് പെര്സന്റേജ് നമ്മളിട്ടിരിക്കുന്നത് ആ അപ്പോള് സാറിന് ഇപ്പോള് സാർ റീഫണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് സർ ചെക്കിതോട്ടെ ഓക്കെ റ്റുഡേ സെവൻതിന് സെവൻ ആ സാർ സാറിൻ്റെ പ്രൊഡക്റ്റ് ഇന്ന് സാർ റീഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കില് സാർ വിത്തിൻ ത്രീ ഡേയ്സ് ബൈ ടെൻത് ജാനുവരിക്ക് ഞങ്ങളുടെയൊരു എക്സിക്യൂട്ടീവ് ഞങ്ങളുടെയൊരു ഞങ്ങളുടെ ഒരാള് അവിടെ വന്ന് സാര് എവിടെയാണിത് പിക്കപ്പ് ചെയ്യുന്നത് സാറിൻ്റെ എവിടെയാണ് സാറിൻ്റെ ഒരു അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അവിടെത്തന്നെ സാര് ഇന്ന് ഓക്കെ ആ

സാറിന്റെ റീഫണ്ട് പിക്കപ്പ് ചെയ്ത് കളക്ട് ചെയ്തപ്പോള് ഉറപ്പ് വരുത്തിയശേഷം വിത്തിൻ ഒരു ഫോർ ഡേയ്സ് സാറിന് അതിന്റെ റീഫണ്ട് കയറിയിരിക്കും ഇൻ കേസ് സാറിന് അപ്പോഴും കയറിട്ടില്ലെന്നുണ്ടെങ്കില് സാറിന് ഡയറക്റ്റായിട്ടു തന്നെ ഞങ്ങളുടെ കസ്റ്റമർ സർവീസിലേക്കു വിളിക്കാം അല്ലെങ്കില് ഈ നമ്പറിലേക്കു തന്നെ വിളിക്കാവുന്നതാണ് സർ ബേസിക്കലി ആ ആ സാര് ആ സാർ അതിന് അതിനും വഴിയുണ്ട് സാറിൻ്റെ അഡ്രസ്സ് സര് മറ്റേ പിക്കപ്പ് പിക്കപ്പായിട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്കു തന്നെ സർ എത്തിച്ചാല് മതി ഞങ്ങളെ ഡെലിവറി ഏജന്റ് അവിടെ വന്നോളൂം അപ്പോള് സാർ സാർ കൊടുക്കുന്ന സമയത്ത് ഈ നമ്പറിലേക്ക് ഒന്നു വിളിക്കാം അപ്പോള് ഞാനെൻ്റെ ഡെലിവറി ഏജന്റ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളാം അതു കുഴപ്പമില്ല സാർ ഒരു കുഴപ്പവുമില്ല സാർ സാറിന് വേറെ എന്തേലും ആഡ് ചെയ്യാനുണ്ടോ

ഓ സാർ എന്നാല്പ്പിന്നെ അത് നമുക്കാണെങ്കില് അത് കൃത്യം റിപ്പോർട്ട് ചെയ്യാവുന്നാണ് സാറിന് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടുംകൂടെ ഉണ്ടെങ്കിൽ സാറാണെങ്കില് ആ സജഷൻസിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് സാർ റിട്ടണായിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അല്ലാതെ ഞാൻ ഇവിടെനിന്നും അതു ഞങ്ങള് റിപ്പോർട്ട് ചെയ്തോളാം ഓക്കെ ആണോ സർ അതായത് ആ അപ്പോള് ഓക്കെ സാർ അപ്പോള് സാർ ഹാവെ നൈസ് ഡേ സാറിൻ്റെ ഫോര് താങ്ക്യൂ ഫോർ യുവര് വാല്വബിൾ ടൈം ഹാവ് നൈസ് ഡേ കൃത്യമായിട്ട് സാറിൻ്റെ പ്രോഡക്റ്റ് ഞങ്ങളെടുത്ത് ഡെലിവറി ചെയ്തോളാം വിതിൻ ഫോർ ഡേയ്സ് സാറിൻ്റെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് കയറിയിരിക്കും ഓക്കെ വെൽക്കം സർ